പണ്ടത്തെ കാലത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ ഇവിടെ അതായത് ആദിവാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഫുൾ കാടാണ് വന്യജീവികളുള്ള കാടാണ് പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ കൂടുതലും മാറി ഇപ്പം എന്ന് വെച്ചാൽ കാടിനേക്കാളും കൂടുതൽ അതായത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളായി മാറി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടുള്ള സ്ഥലത്തിൽക്കൂടെയൊക്കെ റോഡ് വഴികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഒരുപാട് വണ്ടികളായി അങ്ങനെയുള്ള അതായത് ഷോപ്പിംഗ് മാളുകൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ അങ്ങനെ പല അതായത് മനുഷ്യന്മാർ ഇവിടെ ജീവിക്കാൻ തുടങ്ങി പല ബിസിനസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ അതായത് മറ്റ് ജില്ലകളെപ്പോലെ തന്നെ വയനാട് ജില്ലയും മാറിക്കൊണ്ടിരുന്നു ആദ്യത്തെ കാലത്ത് ആദിവാസി മാത്രമായിരുന്നു ഇപ്പോൾ ആദിവാസികളുമുണ്ട് അതുപോലെ നമ്മളെപ്പോലെയുള്ള മറ്റ് ജാതിക്കാരൊക്കെ ഒരുപാട് വന്നിട്ട് കൂടുന്നുണ്ട് വയനാട്ടിൽ ഈ നാട്ടിലിപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു സിറ്റി പോലെ അതായത് ഒരുപാട് മൂന്ന് താലൂക്കുണ്ട് മാനന്തവാടി ബത്തേരി കൽപ്പറ്റ അങ്ങനെ മൂന്ന് താലൂക്കുണ്ട് അങ്ങനെ ഒരുപാട് താമസക്കാരും എല്ലാം ആയി മാറി ഇപ്പോൾ പണ്ടത്തെ കാലം പോലെ അല്ല